ഞങ്ങളുടെ പ്രദേശത്തു നിന്നും കുറച്ച് കിലോമീറ്ററുകളപ്പുറത്തൊരു ഡാമുണ്ട് ആ ഡാമിന് ഡാമേന്ന് വെച്ചാൽ ഡാമിന് പ്രത്യേകിച്ചൊരു പേര് പോലൊന്നുമില്ല അതിനെ ആരും അങ്ങനെ ഒരു ഡാമായിട്ട് അംഗീകരിക്കാത്ത പോലെ അവിടെ കിടക്കുകയായിരുന്നു ഇപ്പോൾ കുറച്ചു മുന്നെ കുറച്ച് പേര് കൂടി അതിന്റെ സ്ഥലത്തുള്ള കുറച്ച് ചെറുപ്പക്കാര് യുവാക്കള് കൂടിയിട്ട് അവിടെ വെട്ടി വെളിച്ചമാക്കി അവിടെ മരങ്ങൾക്കൊക്കെ നല്ല പെയിന്റ് കൊടുത്ത് പിന്നെ അവടെ ചെറിയ ചെറിയ കടകളൊക്കെ വന്ന് കുറെ വിനോദ സഞ്ചാരികളൊക്കെ വന്ന് തുടങ്ങി ഇപ്പം അവിടെ കാണാൻ തന്നെ നല്ലൊരു ഭംഗി ആയിട്ടുണ്ട് ഇപ്പം പണ്ട് അങ്ങനൊരു ഡാമ് അവിടെ ഒരു ഭാഗത്തുള്ളതായിട്ട് തന്നെ അവിടെ വെള്ള വെള്ളച്ചാട്ടം ഉണ്ട് അത് കാണുമ്പോൾ മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു ഡാം ഉണ്ട് എന്ന് തോന്നുന്നത് അല്ലാതെ ആരും അതിനെ മൈന്ഡ് ചെയ്യാറ് പോലുമുണ്ടായിരുന്നില്ല ഇപ്പോൾ അവിടെയുള്ള ന്യൂ ജനറേഷൻ കുട്ടികളൊക്കെ വന്ന് അവരാണ് അതൊക്കെ ഒരു ഡാമാക്കി മാറ്റിയെടുത്തിട്ടുള്ളത് ഇപ്പം ഇനി അവിടെ നല്ല നിലയില് പുരോഗമനം വരുമെന്നാണ് പറയുന്നത് അപ്പം ബോട്ടിങ് സൗകര്യങ്ങളും എല്ലാം ഒന്നും കൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള സൗകര്യങ്ങളും ഒക്കെ വരുമെന്നാണ് പറയുന്നത് ഇവിടെ വരൾച്ച വരാറുണ്ട് ഒരു മെയ് ഒക്കെ ആകുമ്പം നല്ല വരള്ച്ച വരിക ബുദ്ധിമുട്ടാറുണ്ട് ഇവിടെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ട് എല്ലാവരും അനുഭവിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഇവിടെ വെള്ളം കിട്ടാന് എല്ലാവരും വെള്ളം കൊണ്ടുവരുന്ന വണ്ടിയെ കാത്തു നില്ക്കുന്ന ഒരവസ്ഥയാണ് പല പാത്രങ്ങളും വലുതും ചെറുതും കുട്ടികളും വലിയവരും എല്ലാവരും റോഡ് സൈഡിലൂടെ കാത്തുനിൽക്കുന്ന ഒരവസ്ഥയാണ് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ഒരുപാട് പേര് നിറഞ്ഞ വെയ്ലത്ത് സൂര്യഘാതം പോലും ഏറ്റ് എത്രയോ ആൾക്കാര് ഇവിടെ നിന്നിട്ടുണ്ട് വയസായവരും കുട്ടികളും രോഗികളും എല്ലാവരും അവര് വണ്ടിയെ കാത്ത് നിൽക്കുന്നത് വെള്ളപൊക്കത്തിന്റെ ബുദ്ധിമുട്ട് ഇവിടെ വരാറില്ല പക്ഷേ വെള്ളം ഇല്ലതെ വരൾച്ചയുടെ ബുദ്ധിമുട്ട് ഇവിടെ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് പിന്നേന്ന് വെച്ചാൽ ഇപ്പം ഓരോ പരിഹാരം മാർഗ്ഗങ്ങളായിട്ട് ഓരോന്ന് വരുന്നുണ്ട് അതൊക്കെ ശെരിയാകുമെന്ന് കരുതുന്നുണ്ട് ആ വരള്ച്ച മാറും എന്നാണ് വിശ്വസിക്കുന്നത്